ആ എനിക്ക് ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് വേണമായിരുന്നു പുതിയ ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടോ അതെയോ ആ പപ്പായ അവൈലബിൾ ആണോ ആ പിൻ അതേയോ ആ ആ ആ പിന്നെ കേസർ മാംഗോ ഉണ്ടോ കേസർ മാംഗോ ആ പിന്നെ ഓറഞ്ച് ആപ്പിൾ ആ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ആ ഇത് ഫ്രൂട്ട്സ് ഒക്കെ ഏത് സെക്ഷനിലാണ് ആ കേസർ മാംഗോ ഇന്നത്തെ റേറ്റ് എത്രയാണ് ആ എനിക്കൊരു രണ്ട് കിലോ വേണമായിരുന്നു ആ പിന്നെ പപ്പായ ഫ്രഷ് ആണല്ലോ അല്ലേ അറുപത് ഓറഞ്ച് ഇപ്പോൾ സീസണബിൾ ഓറഞ്ച് ഇപ്പോൾ ആ ആ ആ അപ്പോൾ എനിക്ക് ഒരു രണ്ട് കിലോ പപ്പായ രണ്ട് കിലോ കേസർ മാംഗോ രണ്ട് കിലോ ഓറഞ്ചും വേണം അപ്പോൾ ഞാനത് എനിക്ക് തിരഞ്ഞെടുക്കാമോ ആ ആ ഇതുപോലെ വേറെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണുള്ളത്

ആ ഗ്രേപ്സ് സീഡ്ലെസ് ഉണ്ടോ ഇത് ആ ആ പിന്നെ ആപ്പിൾ ഇപ്പോൾ എന്താണ് റേറ്റ് ആ ഓ ഞാൻ അപ്പം ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ തിരഞ്ഞെടുക്കട്ടെ അത് കഴിഞ്ഞെനിക്ക് കുറച്ച് വെജിറ്റബിൾസിന്റെ ആവശ്യമുണ്ട് ഫ്രഷ് വെജിറ്റബിൾ ഉണ്ടാവുമല്ലോ അല്ലേ ആ വെജിറ്റബിൾസ് എങ്ങനെയാണ് ഇപ്പോൾ റേറ്റ് ആ ആ ആ ഞാൻ അപ്പോൾ ഫ്രൂട്ട്സ് ത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വെജിറ്റബിൾ സെക്ഷനിലേക്ക് വരാം ആ അപ്പം എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം ആ ആ നിങ്ങളുടെ സെയിൽസ്മാൻ ആരെങ്കിലും എനിക്ക് ഹെൽപ്പിനുണ്ടാവില്ലേ ആ ആ ആ ഓക്കെ എന്നാൽ നമുക്ക് ഫ്രൂട്ട്സ് സെക്ഷനിലേക്ക് പോകാം ആദ്യം ആ ആ ഓക്കെ ഓക്കെ